അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട്